ഇപ്പം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഫുൾ അഡിക്റ്റാണ് കുട്ടികളാണെങ്കിലും ഇപ്പോൾ വലിയവർ ആണെങ്കിലും ശരി ഫുൾ ടൈം അഡിക്റ്റാണ് അവർക്ക് ഇപ്പോൾ വീട്ടുകാരോട് സംസാരിക്കാൻ അങ്ങനത്തെ സമയമില്ല ഫുൾ ടൈം ഫോണിൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേൽ അതായത് ഇപ്പം കുട്ടികളുടെ സ്ഥിതി ആണ് പറയന്നതെങ്കിൽ അമ്മയും അച്ഛന്മാരും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു പറയാൻ ഉള്ള ഒരു മനസ്സ് പോലും കുട്ടികൾ ഇപ്പോൾ കാണിക്കുന്നില്ല അവർ അത്രയും അവർ ഫോണിൽ അഡിക്റ്റാണ് അവർക്ക് ഇപ്പോൾ അമ്മയും അച്ഛനും ഇല്ലാണ്ടായാലും കുഴപ്പമില്ല ഫോൺ ഉണ്ടായാൽ മതി ഫോൺ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടായാൽ മതി കമ്പ്യൂട്ടർ ഉണ്ടായാൽ അവിടെ ഇരുന്നോളും അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവര് അവരുടെ കാര്യമായി അവര് അവര് അതായത് കുളി അതായത് ഈ ഫോൺ കിട്ടിയാൽ കുളിക്കലും ഭക്ഷണം കഴിക്കലും എല്ലാം കണക്കായിരിക്കും ആ ഫുൾ ടൈം ആ ഫോണിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഭയങ്കര പ്രശ്നമാ ഈ സോഷ്യൽ മീഡിയയുടെ കാലം വന്നതോടെ കുട്ടികൾ മുഴുവൻ നാശമായി പിന്നെ ഇപ്പോൾ ഈ അടുത്ത് കൊറോണ കാലം വന്നപ്പോൾ ആ രണ്ടു വർഷം പിന്നെ കുട്ടികൾ ഒക്കെ എന്ത് ചെയ്തു പിന്നെ വീട്ടിലിരുന്ന് അവർക്ക് അപ്പം ഫോണിലായി ക്ലാസുകൾ ക്ലാസ് ഒന്നും കാണുന്നില്ല കുട്ടികൾ ഫുൾ ഫോണിൽ ആയി കളി പിന്നെ അവർക്ക് അത് ഫോൺ ഇലാണ്ട് പറ്റാണ്ടായി അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് ഇപ്പം കുടുംബ ബന്ധങ്ങൾ പോലും തകരാറിലാക്കുന്ന പല പ്രശ്നങ്ങളും ഈ സാങ്കേതികവിദ്യയുടെ കാലം ആയതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്തുണ്ട്